ആ പറഞ്ഞോ

ആ ആണ് ആണ് ഓ എനിക്ക് അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ അതിനൊന്നും പോയിട്ടില്ല

ആ അതാണ്

ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്

ഞാൻ ഇവിടെ ഉണ്ട്

അല്ല വർക്ക് ഒന്നും ചെയ്യുന്നില്ല വീട്ട് വൈഫ് ആണ് ആ ഞങ്ങളുടെ പിള്ളേർ എല്ലാം വെളിയിൽ അങ്ങൊന്നും ഇല്ല

ആ

ആ കൊടുക്കാം

ഓക്കെ